ഹലോ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഒരു നമ്മുടെ ഫാമിലി ആയിട്ടൊരു ഗുരുവായൂര് വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു എട്ടു ആളുകള് ഇണ്ട് ഇവിടെ സ്ഥലം മാത്തൂര് ആണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചരക്ക് പിക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാ വരുക എന്നൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്